ആ അതെയല്ലോ അതെയല്ലോ എന്തായിരുന്നു

ആ ഏതൊക്കെ ഫുഡാണ് ഉദ്ദേശിക്കുന്നത്

അപ്പോഴേ ഉച്ചയ്ക്കാണോ വൈകീട്ടാണോ എപ്പോഴാണു പരിപാടി ഓ ആ അപ്പോള് ചോ എത്ര എത്ര എത്ര എത്ര പേർക്കുള്ള ഫുഡ്ഡാണ് ഓ ഓ മുന്നൂറു രൂപ പ്ലെയ്റ്റിനു മുന്നൂറു രൂപ

ഓ അതെല്ലാം അതെല്ലാമുണ്ട് അതെ അതെ അതെ ആ ചിക്കൻ ഫ്രൈസ് ചിക്ക് ഓ കുപ്പി കുപ്പിവെള്ളം കുപ്പിവെള്ളം മ്മ് ആ ആഹാ അതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് ആ അതിനെക്സട്രാ പേയ്മെന്റ് വരുവേ ആ മ്മ് മ്മ് മൊത്തം മൊത്തം ഒരു ഇതില് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് മ്മ് ഐസ്ക്രീമുൾപ്പെടെ ഇല്ല ഇല്ല ഇല്ല ഇല്ല കുറവു ചെയ്യാൻ കുറവുചെയ്യാൻ നമ്മളീ റെയ്റ്റിനാണേ കൊടുക്കുന്നതേ കുറവെയ്യാനായിട്ടു സാധിക്കില്ല

ആ ഇപ്പോള് സാധനങ്ങൾക്കെല്ലാം വില കൂടിയില്ലേ അതുകൊണ്ട് നമുക്കു കുറവെയ്യാനായിട്ടു സാധിക്കില്ല ആ വേണെങ്കിലെന്തെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റെയ്യാം മ്മ് ആ ഓ ഓ ഓ

മ്മ് ആ ആ ഫ്രൈയായിട്ട് ചിക്കൻ ഫ്രൈയായിട്ട് ആ ചിക്കൻ ഫ്രൈയ്യുമുണ്ട് രണ്ടുമുണ്ട് ആ പോത്ത് ആ അതെ ആ ഗ്ലാസ് ഗ്ലാസും ഗ്ലാസും പ്ലെയ്റ്റും അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മള് തന്നെ കൊണ്ടുവരണം ആ നമ്മള് നമ്മള് ആ നമ്മള് തന്നെ എല്ലാം ചെയ്തുതരും ആ ബൊഫേ ബൊഫേ ആയിട്ട് മ്മ് മ്മ് മ്മ് ഹമ്മ് ഹമ്മ് മ്മ് ആ എന്നാല് ശരി അങ്ങനെയ്യാം അങ്ങനെയ്യാം നാളെ മ്മ് നാളെ അഡ്വാൻസ് തരണേ ആ ആഹാ ആ ആ ശരി ഓക്കെ ആ